കാര്യമാണ് കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നൃത്തത്തെയാണ് കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഒരു രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് കിടക്കുന്ന സമയം വരെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിക്കുന്നത് ഞാൻ ഡാൻസ്സ് ഞാൻ നൃത്തം ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് കാരണം നൃത്തം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും പിന്നെ എന്റെ എന്റെ മനസ്സിനെ കുറച്ചു കൂടെ ഒന്ന് ആസ്വദിപ്പിക്കുവാനും എനിക്ക് സാധിക്കും

ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും തരണം ചെയ്യാനാണ് വ്യക്തിക്ക് തീർച്ചയായിട്ടും സാധിക്കും അപ്പം നൃത്തം എന്ന് പറയുന്ന കലാ രൂപം വളരെ വളരെ അനിവാര്യമായ കാര്യമാണ് അതിനോടൊപ്പം തന്നെ ആ ഒരു ആ ഒരു

നമുക്ക് സമൂഹത്തിലെ എല്ലാ ആൾക്കാരെയും ഒത്തൊരുമയോടെ നിൽക്കുമ്പം നൃത്തം ചെയ്യാം നൃത്തം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് ഒരു ചെറിയ ഒരു

അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് എന്റെ എന്റെ ലൈഫിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് വിഷമമുണ്ടായി കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ ഞാൻ

ശരീരത്തെ കുറച്ചും കൂടെ ഒന്ന് ബലപ്പെടുത്താനും നമ്മുടെ ശരീരത്തെ കുറച്ചും കൂടെ ഒന്ന് അതിൻ്റേതായ ഒരു രീതിയിൽ അതിൻ്റേതായ ഒരു ആസ്വദിപ്പിക്കാൻ നമുക്ക് സാധിക്കും അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ന്യത്തത്തിന് ഒരുപാട് ഒരുപാട് പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം മനസിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നൃത്തത്തിന് അതിന് എന്ത് ബുദ്ധിമുട്ടും വന്നാലും അതിനെ തരണം ചെയ്യാൻ സർവേശ്വരൻ അയാൾക്ക് കൂപ്പ് തരും അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷെ എനിക്ക് സർവേശ്വരനൊരു കൃപ തരട്ടേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം

നിർത്തുകയില്ല അതിന് ഞാൻ എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് അത് ഉൾക്കൊള്ളാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന് ഞാൻ ആശംസിക്കുന്നു